ഹലോ ഇത് ക്യാബ് ഏജൻസിയിൽ നിന്നല്ലേ ഞാൻ ഒരു എന്നാണ് ഡേയ്റ്റ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ബുക്ക് ചെയ്തതായിരുന്നു പതിനാലാം തീയതിയിത്തേക്ക് വേണ്ടി പക്ഷേ പന്ത്രണ്ട് മണി നേരത്താണ് ഞാനത് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഇത്രയും നേരം ഇപ്പം പന്ത്രണ്ടര ആയി എന്നിട്ടും വന്നിട്ടില്ല എനിക്കൊരു ഫങ്ങ്ഷന് പോകാൻ വേണ്ടിയാണ് ഞങ്ങളത്ര സീരിയസ്നെസ്സായിട്ടാണത് ചെയ്തത് രണ്ട് ദിവസം മുമ്പേ ഞങ്ങള് ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങള് ഇത്രയും നേരമായിട്ടും നിങ്ങളുടെ വണ്ടിയെന്താണ് വരാത്തത് ഇത് ഇതിൻറ്റെ വേണ്ടത് അത്ര സീരിയസ്നെസ്സ് നിങ്ങള് എടുക്കാത്തത് കൊണ്ടാണോ ഞങ്ങളത്ര അർജൻറ്റായിട്ടുള്ള കാരണമാണ് രണ്ട് ദിവസം മുൻപേ തന്നെ ഇതൊക്കെ ബുക്കെയ്ത് വെച്ചത് എന്നിട്ടും നിങ്ങൾ വരാത്തത് ഭയങ്കര മോശമാണ്